ഞാൻ വളർത്തുന്നത് കോഴിയും ആടുമാണ് അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോഴും ഒക്കെ അതിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട് പിന്നെ ഞാൻ അവർക്ക് പെറ്റ് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല എന്നാൽ ചുമ്മാതെ പിന്നെ ആട്ടിൻ കുട്ടികളൊക്കെ ആവുമ്പം നമ്മൾ അതുങ്ങൾക്ക് പേര് ഞാൻ പേരിടും അപ്പം പേര് വിളിക്കുമ്പോഴ്ത്തേക്കിനും അവർക്കൊരു പ്രത്യേക സ്നേഹമാണ് നമ്മളോട് അപ്പം അത്ങ്ങൾ ഓടി നമ്മളടുത്ത് വരുകയും നമ്മളോട് ഭയങ്കര ഇത് ഇതാണ് നമുക്ക് കാരണം വിളിച്ചാൽ ഉടനെ അവർക്കറിയാമല്ലോ നമ്മൾ ആ പേര് വിളിക്കുമ്പം അവർക്ക് അറിയാം അങ്ങനെ അവർ ഞാൻ അങ്ങനെ പേരിട്ട് വിളിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ എവിടെലുമൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടേലും കെട്ടിയിട്ട് പോവാണെങ്കിലും വരുന്നിടം വരെയും നമ്മളെ നോക്കി നിൽക്കും തിരിച്ച് വരുന്നിടം വരെ എവിടേലും യാത്ര പോവാണെങ്കിൽ പോലും നമ്മളെ നോക്കി ഇരിക്കും വീടിൻ്റെ പരിസരത്തൊക്കെ ആണേൽ അങ്ങനെ കോഴികൾ ആണേൽ ഈ പറഞ്ഞ പോലെ അടി നമ്മൾ കൂട്ടിലിട്ടിട്ടാണേൽ അത്ങ്ങൾക്ക് അത്ങ്ങൾടെത് ആയിട്ടുള്ള നമ്മൾ തീറ്റെം കുടിം ചെല്ലുമ്പോഴും മുട്ട എടുക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാ നമ്മളോട് കാരണം നമ്മളല്ലെ എപ്പോഴും ചെല്ലുന്നത് അടുക്കുന്നത് അതുകൊണ്ട് നമ്മളോട് വീട്ടിലുള്ളവരോട് പ്രത്യേകമൊരു കാര്യമാണ് പിന്നെ നമ്മൾ നമ്മൾ ഇതിനെ വളർത്തുന്നത് പറഞ്ഞാലും നമ്മൾ അവരോട് കൂടുതൽ സഹകരണം വർത്തിത്വം നടത്തുന്നത് പോലെ തന്നെ അവർക്കും നമ്മളോട് അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെയൊരു സ്നേഹം നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോട് നമുക്ക് പ്രത്യേകതരമായൊരു ഒരു ഓമനത്തം ഉണ്ടല്ലോ എപ്പോഴാണെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ പെറ്റായിട്ട് വളർത്തുന്നത് അവയ്ക്കൊക്കെ ആണേൽ നമ്മൾക്ക് അവർക്കൊരു ഏറെ സ്നേഹമാണ് കാരണം അത്ങ്ങൾക്ക് കൂടുതലും ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളോട് കൂടുതൽ ഇതായിട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പട്ടി പൂച്ച അവയൊക്കെയാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ നമുക്ക് അവരോട് പ്രത്യേകം കാരണം നമ്മൾക്ക് എത്രയാന്ന് പറഞ്ഞാലും അവർ നമ്മൾ കൂടുതലും മറ്റ് മൃഗങ്ങളെ കാട്ടിലും കൂടുതൽ സ്നേഹത്തോടെ വളർത്തുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ നമ്മളോട് അറ്റാച്ച്മെൻറ്റുണ്ട് അപ്പം അത് അത്കൊണ്ട് നമ്മൾ അവർ കാരണം നമ്മുടെ കൂടെ കൂടുതൽ അവരേക്കാൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ഇടപെഴുകുന്നത് കൊണ്ട് നമ്മുടെ പെരയ്ക്കകത്തെല്ലാം നടന്ന് ഒത്തിരി നമ്മളോട് മുട്ടി ഉരുമി കഴിയുന്നോണ്ട് അവർക്ക് പ്രത്യേകം ഒരു സ്നേഹം നമ്മളോടുണ്ട് അപ്പം അവർ നമ്മളെ അത് ഇവരെ മറ്റു വളർത്തു മൃഗങ്ങളെ കാട്ടിലും ഇതായിട്ട് തന്നെ ഈ പെറ്റിനുകളെ നമ്മൾ അത്രയും അങ്ങനെ അതിൻ്റെ അതൊരു ഓമനത്തം കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് നമ്മളോട് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് നമ്മളോട് കൂടുതൽ നമ്മളുടെ ഇടപെടൽ നമ്മളെങ്ങനെയാണോ അവയോട് സ്നേഹം കാണിക്കുന്നത് അതുപോലെ തന്നെ അവയും നമ്മളോട് തിരിച്ച് അതിലേറെ ഇഷ്ടത്തോടെ നമ്മളോട് സ്നേഹം അത്ങ്ങൾ കാണിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് അങ്ങനെയാണ് ഞാൻ നമുക്കാണ് നമ്മളത്രമേൽ അവരെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് അല്ലേ അത്രമേൽ ഓമനത്തത്തോടുകൂടി നമ്മൾ വളർത്തുന്നുള്ളത് കൊണ്ട് അത്രേം സ്നേഹത്തോടുകൂടി അവരും നമ്മളെ അങ്ങനെ തന്നെ തിരിച്ചും നമുക്ക് തരും അത് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ വളർത്ത് ഞാൻ ഞാൻ എൻ്റെ വളർത്തിയ അനുഭവത്തിൽ നിന്നും എനിക്ക് ഉള്ള അനുഭവം ഒരു പറയാനുള്ളൊരു അഭിപ്രയം എന്നു പറഞ്ഞാൽ അതാണ് എനിക്ക് അത്രമേൽ അവരോട് വലിയ അങ്ങനൊരു അറ്റാച്ച്മെൻറ്റ് അവർക്കെനി എനിക്കവരോടും അവർക്ക് എന്നോട് നമ്മളോട് അല്ല വീട്ടിൽ എല്ലാവരോടും തന്നെ ഉണ്ട് എങ്കിൽ പോലും നമ്മളോട് പ്രത്യേകത ഉണ്ട് എന്നാൽ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ അങ്ങനെ ആയതു കൊണ്ട്